ഇതിന് ഏലിയാണെങ്കിൽ എലിക്കുള്ള വിഷമായിട്ട് ബിസ്കറ്റ് ഏലി ബിസ്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളും അതേപോലെ അവിടെ മൊത്തമൊന്ന് വൃത്തിയാക്കി ക്ലീനാക്കും പാറ്റയ്ക്കുള്ള ചോക്ക് പാറ്റയ്ക്കുള്ള വിഷായിട്ട് ചോക്ക് അതാണ് വെക്കുന്നത് അത് വരക്കുകയും എലിക്കുള്ള വെക്കുകയും ചെയ്യും ഫസ്റ്റ് ഇതെല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുമ്പോൾ തന്നെ ഇത് ഇല്ലാണ്ടാവും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എവിടെയായാലും ശുചിമുറിയായാലും അടുക്കളയായാലും നല്ല രീതിയിൽ വൃത്തിയോടെ നോക്കുവാണെങ്കിൽ അതിൻ്റെ കുഴപ്പങ്ങളും ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ശല്യങ്ങൾ ഒന്നും ഉണ്ടാവത്തില്ല ഇതിന്റെ പരമായിട്ട് വേസ്റ്റ് ഒഴിവാക്കുക കൂടുതലും അടുക്കളയിൽ നിന്നും അതേപോലെ ഇതിനു വേണ്ടി വിഷം വെക്കുക ഇതിനെ കൊല്ലുക അങ്ങനെയാണ് നടക്കുള്ളൂ അതിനിപ്പോൾ ഒഴിവാക്കാനായിട്ട്